ഹായ് ഹലോ ഹലോ എന്താണ് അതേ എന്താ വേണ്ടത് ആ പറയ് ആടുജീവിതം ബുക്ക് കൊണ്ടുവന്ന് വെച്ചതൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നിലവിൽ ഉള്ള ബുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓ വീ വിജയൻ്റെ കടൽത്തീരത്ത് അത് പോലെ ഖസാക്കിൻ്റെ ഇതിഹാസം തകഴീൻ്റെ ചെമ്മീൻ എസ് ക്കെ പൊറ്റക്കാട്ടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ എന്ന പുസ്തകങ്ങളൊക്കെ ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് കടൽ തീരത്ത് പറഞ്ഞ പുസ്തകത്തിന് നൂറ്റിയെൺപത് ഉർപ്പ്യ ആണ് പിന്നെ ഖസാക്കിൻ്റെ ഇതിഹാസം നൂറ്റി അൻമ്പത് ഉർപ്പ്യ ആണ് ചെമ്മീന് ഇരുന്നൂറ് ഉർപ്പ്യ ആണ് ഒരു ദേശത്തിൻ്റെ കഥ പറഞ്ഞ പുസ്തകത്തിന് നൂറ്റി എൺപത് ഉർപ്പ്യ ആണ് ഇതിലെ ഏതെങ്കിലും താല്പര്യമുണ്ടോ ആ തകഴിയുടെ ചെമ്മീൻ അത് ഉണ്ട് അതെങ്ങനെയാ ഇപ്പം അയക്കേണ്ടത് എങ്ങനെ വാങ്ങാൻ നേരിട്ട് വരുമോ ആ അങ്ങനെ ചെയ്തുതരാം ഓ വീ പീ പ്പി ആയിട്ട് അയക്കാം അല്ലെങ്കിൽ കൊറിയറിൽ ആയിട്ട് അയക്കാം എങ്ങനെയാ അയക്കേണ്ടത് കൊറിയർ അയച്ചാൽ അന്ന് അയച്ചാൽ നാളെ തന്നെ കിട്ടുമല്ലോ കൊറിയറിന് മറ്റേ ഡിലേ വരില്ല പെട്ടെന്നു കിട്ടും ഇല്ല അത് പത്തോ ഒരു ഇരുപത് കൂടതലായിട്ട് ഒന്നും ഇല്ല പത്ത് രൂപേ അല്ലെങ്കിൽ ഇരുവത് രൂപേ വരുള്ളൂ കൊറിയറ് അയക്കാം അല്ലേ ആ ആയിക്കോട്ടെ എന്നാൽ ശരി ഓക്കെ